ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ അവർക്കൊരു ഓപ്പർച്യുണിറ്റി ഒന്നും ലഭിക്കാറില്ല അവരുടെ സമൂഹത്തിൽ കൂടി ഇരുന്നു കൊണ്ട് ചെറിയ തരത്തിൽ അവർ കുട്ടികൾ തന്നെ ഫുട്ബോള് കളിക്കാറുണ്ട് കബഡി കളിക്കുന്നവർ ഉണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് പിന്നെ നമ്മുടെ ചെസ്സ് കളിക്കുന്നവരുണ്ട് ക്യാരംസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രാമീണ സമൂഹത്തിൽ ചെറിയ തോതിൽ അവർ കളിച്ചു തുടങ്ങും കളിച്ച് കളിച്ച് കളിച്ച് കുറച്ചാവുമ്പോൾ ക്ലബ്ബുകളിൽ വഴി അവരെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ അവരുടെ കഴിവുകൾ അങ്ങനെ മെച്ചപ്പെടുത്താറുണ്ട് നമുക്കതിനൊരു വേറൊരു ഓപ്പർച്യുണിറ്റി എന്നും കിട്ടാത്തതുകൊണ്ട് ഇവർ ഇതുതന്നെ കളിച്ച് കളിച്ച് വരുമ്പോൾ കായികവിനോദങ്ങൾ പല തരത്തിലുള്ള വിനോദങ്ങൾ അവർ ഏർപ്പെടും അങ്ങനെ ഇതും കായികമായിട്ടും സാമൂഹികപരമായിട്ടും അവർക്കൊരു വിനോദ അവരുടേതായൊരു കഴിവ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഴിവുകളിൽ കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു വിധത്തിലല്ല ഒരു വ് വേറൊരു ലെവലിലേക്ക് തന്നെ എത്തപ്പെടാൻ നമുക്ക് സാധിക്കും കുട്ടികളെ ഇങ്ങനെ സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഗ്രാമീണ സമൂഹത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് വേറൊരു ഓപ്പർച്യുണിറ്റിയോ അല്ലെങ്കിൽ വേറൊരു സാഹചര്യമോ ഒന്നുമില്ല ഈ ഗ്രാമത്തിലുള്ളവർ തന്നെ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കളിച്ച് അവർ അങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് ഈ കഴിവുകളിലൂടെയാണ് അവർ സ്കൂളുകളിൽ ചെല്ലുമ്പോഴും അവർക്ക് നല്ല നല്ല ഓപ്പർച്യുണിറ്റികൾ ലഭിക്കും അങ്ങനെ അവർ സ്പോര്ട്സിൽ സെലക്ട് ചെയ്യാറുണ്ട് അല്ലാതെ ഉള്ള കായികവിനോദ വേറെ പാട്ട് ഡാൻസ് അങ്ങനെയുള്ളതൊക്കെ അവർക്ക് ലഭിക്കാറുണ്ട് അതുവഴി അവരൊരു നല്ലൊരു ഭാവിയിൽ എത്തിപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങളുടെ ഈ സമൂഹത്തിൽ തന്നെ ഒരുപാട് കുട്ടികൾ എനിക്ക് അറിയാവുന്നവരുണ്ട് അവരൊക്കെ ഇതേവഴി ഇങ്ങനെ അവരുടെ ആ എരിയയിൽ ഗ്രാമീണ സമൂഹത്തിൽ ഇങ്ങനെ വളർന്ന് വന്നിട്ടാണ് സ്ക്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അവർ കലാതിലകമായി മാറുന്നത് സ്പോർട്സിൽ ആയാലും മറ്റുള്ള എന്ത് കഴിവിലായാലും അവരൊരു ടോപ്പിൽ എത്തുന്നത് ഈ ഗ്രാമത്തിൽ നിന്നുള്ള ഈ പ അവർക്ക് ചെറിയ തോതിൽ ഉള്ളോരു ഒരു പ്രേരണയാണ് അലെങ്കിൽ പ്രോത്സാഹനം വഴിയാണ് അവർ രക്ഷപ്പെടുന്നത് അവർ നല്ലൊരു അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള അവർക്കുള്ള പ്രചോദനം